നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പം കാലാവസ്ഥ ഓരോ ദിവസം ചെല്ലുന്തോറും മാറി മാറി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഒരു കാലാവസ്ഥ അല്ല നമുക്ക് ഈ വർഷം നമ്മൾക്ക് കിട്ടുന്നത് ഈ വർഷത്തേത് ആയിരിക്കത്തില്ല ഒരു പക്ഷേ അടുത്ത വർഷം ഇപ്പം മഴയൊക്കെ ആണെങ്കിൽ കൂടി ഒരു മഴ വന്നാൽ ഒരു മൂന്നാലാഞ്ചു ദിവസം അടുപ്പിച്ചങ്ങ് നല്ല ശക്തിയായിട്ടുള്ള മഴയായിരിക്കും മഴയും കാറ്റും ഒക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കാറ്റു മൂലമൊക്കെ നമ്മുടെ ഏത്ത വാഴകൾ കപ്പ ഇതൊക്കെ മറിയാനും അങ്ങനെ മറിഞ്ഞ് ഒടിഞ്ഞു നമുക്ക് നല്ലൊരു നഷ്ടം വരാൻ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഇപ്പം വെള്ളം ഇവിടെ നമ്മുടെ കൂട്ടനാട് ഏരിയാ സൈഡൊക്കെ ആണെങ്കിൽ കോട്ടയത്തിൻ്റെ കുട്ടനാട് പ്രദേശം വൈക്കം പ്രദേശം ഒക്കെ ആണെങ്കിൽ ഈ നല്ല മഴ വരുമ്പോഴത്തേക്ക് വെള്ളം കയറി കണ്ടത്തിലൊക്കെ വെള്ളം നിറഞ്ഞ് നെൽകൃഷിയെ ഒക്കെ നന്നായിട്ട് അത് ബാധിക്കാറുണ്ട് മട വീണൊക്കെ നെൽകൃഷി ഒക്കെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഏത് കൃഷിയെ ആണെങ്കിലും മഴയുടെ വ്യതിയാനങ്ങള് നന്നായിട്ട് ബാധിക്കാറുണ്ട് ഇപ്പ കീടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഓരോ ഉറുമ്പുകളായിട്ടും ഓരോ പ്രാണികളുമൊക്കെ നന്നായിട്ട് ശല്യം ചെയ്യാറുണ്ട് നമ്മുടെ പയറു പോലെ പയർ വെണ്ട തക്കാളി പോലെയുള്ള കൃഷികളെയൊക്കെ ഈ വിളകളെയൊക്കെ ആ അത് ആ അതിൻ്റെ ഇലകളൊക്കെ ആണേലും കുത്തി കുത്തി കളയുക അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു വിളവ് ലഭിക്കാതെ പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കു തോന്നുന്നത് ഈ കൂടുതലും ഈ പയറുവർഗങ്ങളെയൊക്കെയാണ് ഇത് നന്നായിട്ട് ബാധിക്കാറുണ്ടെന്ന് തോന്നുന്നു ഈ കീടങ്ങളുടെ ആക്രമം ആക്രമണം ഇപ്പം നമുക്കത് വിഷം അടിച്ചെന്ന് പറഞ്ഞാലും അത് നമുക്കത് അത്ര നല്ലതല്ല ഈ വിഷം ഒക്കെ അടിക്കുന്നത് അപ്പം വിഷം അടിച്ചു വേണം നമുക്കവയെ ഒക്കെ ഒഴിവാക്കാം പക്ഷേ ഈ വിഷം അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാവക്കായയെ എന്തൊരു ആണേലും വിഷം അടിച്ചു കഴിഞ്ഞാൽ അതൊരു ദോഷം അല്ലേ അത് അത് നമ്മൾ ഉള്ളിലേക്ക് തന്നെ അല്ലേ അത് ചെല്ലുന്നത് അപ്പം അത് നമ്മളെ നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും അതുകൊണ്ട് വിഷം അടിക്കുന്നതിനോടൊന്നും എനിക്കത്ര താല്പര്യം ഇല്ല മാക്സിമം നമ്മൾ പ്രകൃതീടെ രീതീയിൽ തന്നെ നമുക്ക് അവയെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഈ പുകയ്ക്കുകൊക്കെ ആണെങ്കിൽ കുറെയൊക്കെ കീടങ്ങളെ ഒഴിവാക്കാന്നാണ് പറയുന്നത് പിന്നെ മഴയും ഈ കാ ഈ കാലാവസ്ഥയുടെ വ്യത്യാസവും മഴ ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ വെയിൽ കൊണ്ട് നമ്മുടെ കൃഷിയെല്ലാം നശിക്കാറുണ്ട് ഭയങ്കര നല്ല വെയിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് വെള്ളം കിട്ടാതെ ഒരു കുറെ കൃഷികളൊക്കെ നമ്മുടെ നശിച്ചു പോകുന്നു അതു ഒരു പ്രശ്നം തന്നെയാണ് ഏത്ത വാഴ നമ്മുടെ ഇവിടെ കോട്ടയം ജില്ലയിൽ ഏത്ത വാഴ കൃഷി കപ്പ കൃഷി എല്ലാം തന്നെ ഉണ്ട് പയറുവർഗങ്ങൾ കർഷകരുണ്ട് റബ്ബർ കർഷകരുണ്ട് റബ്ബറൊക്കെയാണെങ്കിൽ കാറ്റത്ത് മറിഞ്ഞ് വീണു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മരം നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ അതിൽ നിന്ന് നമുക്ക് പാലൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ നമുക്കൊരു നഷ്ടമാണ് അതുകൊണ്ട് പിന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ മാക്സിമം നോക്കുക അതായത് ഇപ്പം കീടങ്ങളെയൊക്കെ നമുക്ക് ഇത് പോലെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് അവയെ ഒക്കെ ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ പ്രകൃതിയിൽ വരുന്ന ബാക്കി കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടു എല്ലാമായിട്ടും നമുക്കങ്ങ് ഒത്തുപോകുക